ഹലോ

ചായക്കടയിലെ ചേട്ടനല്ലേ ചായക്കടയിലെ ചേട്ടനല്ലേ ചായക്കടയിലെ ചേട്ടനല്ലേ എനിക്കേ ഞങ്ങള്ക്ക് കുടുംബ കൂട്ടായ്മ നടക്കുവാണെ വീട്ടിലേ എൺപത് കടി വേണമായിരുന്നു നാളത്തേക്ക് ഒരു എൺപതിലെ അതു മിക്സ്യേതു തന്നാല് മതി എല്ലാ ഐറ്റവും ഒരു പത്തെണ്ണംവച്ച് വച്ചേര് ആ പിന്നെ എൺപത് പേർക്ക് നമുക്ക് ചായയുംകൂടെ എത്തിക്കാനുള്ള ഉള്ള സൗകര്യമുണ്ടോ എൺപത് പേർക്ക് ചായയും കൂടെ എത്തിക്കാനുള്ള സൗകര്യമുണ്ടോ

അതെയതെ അതിലെ ഇരുപത് ഇരുപതു ചായ വിതൗട്ടും ബാക്കി അറുപതെണ്ണം കുഴപ്പമില്ല നോർമൽ ചായ എന്തോ കടുംകാപ്പി ഒരു പത്തെണ്ണം കടുംകാപ്പി കൂടെ വച്ചേരെ നമുക്കേ നാളെ ആറരയ്ക്കാണേ കുടുംബ കൂട്ടായ്മയേ അപ്പോള് നമുക്ക് തോപ്രാങ്കുടിയില് ഡോൺ ബോസ്കോ എന്നു പറയുന്ന ഒരു കൂട്ടായ്മയിലോട്ടാണ് മ്മ് ആറരയ്ക്കാണ് അല്ല വണ്ടി അവിടല്ലെങ്കില് ഒരു കാര്യം ചെയ്താല് മതി റെഡിയാക്കി വച്ചുകഴിയുമ്പോള് ഞങ്ങളെ ഒന്ന് അറിയിച്ചാല് മതി ഞങ്ങളാരെങ്കിലും അവിടെ വന്നെടുത്തോളാം ആ അല്ല ഞാൻ പറഞ്ഞത് മിക്സ് ചെയ്തെടുക്ക് എണ്പതെണ്ണമല്ലേ ബോളി പത്ത് പിന്നെ പരിപ്പുവട പത്ത് സുഖിയൻ പത്ത് അങ്ങനങ്ങനെ അപ്പോള് അത് അതെല്ലാം കൂടെയൊന്ന് പാർസലാക്കി തരുകേലെ ആ റെഡിയായിക്കഴിയുമ്പോള് ഞങ്ങളെ ഒന്നു വിളിച്ചാല് മതി ഞങ്ങള് ഒന്നെങ്കില് വണ്ടി വിട്ടു വരുവോ അല്ലെങ്കില് എങ്ങനേലും വന്ന് എടുത്തോളാമേ കാപ്പി നമ്മക്ക് നല്ല ചൂടോടെ തന്നെ കിട്ടണേ ഏറെക്കുറെയിത് പ്രാർത്ഥന കഴിയുന്ന സമയത്തോട് കൂടി മതിയെ ആറരയ്ക്കു കൂട്ടായ്മ തുടങ്ങും ഏഴര ആവുമ്പോള് തീരും ഒരു ഏഴേ കാലോടു കൂടി ഇത് കിട്ടുമോ ആ അല്ല ചേട്ടൻ്റെ കടയുടെ അങ്ങോട്ട് ഞങ്ങള് വണ്ടി വിട്ടേക്കാം ആ വണ്ടിയിൽ ആളു വന്നേക്കാം അന്നേരമത് പാക്കേയ്തു കൊടുത്താല് മതിയേ മൊത്തവൂടെ എത്രയാകുമെന്നേ അതിൻ്റെ കണക്ക് ഒന്ന് കൂട്ടിപ്പറയാമോ

ആ എന്നാല് ഈ നമ്പറില് ചെയ്താല് മതിയോ അ ആ അപ്പോള് ചേട്ടന് ഈ നമ്പറില് ആയിരത്തി അഞ്ഞൂറ് ഗൂഗിൾ പേ ചെയ്തേക്കാമേ ആ പിന്നേ പിന്നെ ഇതു കഴിഞ്ഞ് അടുത്ത ആഴ്ച നമ്മള്ക്കു വേറൊരു ഫങ്ങ്ഷനുണ്ട് അതിനു നമ്മള്ക്കു വേറെ എന്തെങ്കിലും ഫുഡുങ്കൂടെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നമുക്കൊരു കുടുംബ കൂട്ടായ്മ വാർഷികം ഉണ്ട് അപ്പോള് ഞങ്ങൾ അതിനകത്ത് ഫുഡ് കാര്യമായിട്ട് കൊടുക്കാനാണേ ഞങ്ങള്ക്ക് എൺപതു പേർക്ക് ഏഷ്യാഡ് ഉണ്ടാക്കി ഏഷ്യാഡുണ്ടാക്കിത്തരാമോ എണ്പതു പേർക്ക്

പിന്നെ സലാഡ് വേണം സലാഡ് ഇന്നില്ലല്ലോ എന്തോ വേണ്ടത് പ്ലേറ്റ് പിന്നെ ഗ്ലാസ്സ് പ്ലേറ്റ് അതെല്ലാം ആ കൂട്ടത്തില് കൊണ്ടുവരുകേലേ അല്ലാ ചേട്ടൻ സാധാരണ കടയില് കൊടുക്കുന്നതു മതി ഡിസ്പോസിബിളിൻ്റെ പേപ്പർ ഗ്ലാസും പേപ്പർ പ്ലേറ്റുംകൂടെ എണ്പതു പേർക്കുള്ളത് കൊടുത്തുവിടണേ എന്നാല് ഞങ്ങള് ആളിനെ വിടുകയാണ് റ്റിഷ്യു പേപ്പറും കൊടുത്തുവിടണം കൂടെ റ്റിഷ്യു പേപ്പര്

തലേദിവസം ഒന്നുകൂടെ പറഞ്ഞേക്കാം അത് ഫാസ്റ്റിംഗ് ഞങ്ങള്ക്ക് എട്ടരയ്ക്കാണേ ഫാസ്റ്റിംഗ് തീരുന്നതേ ആ സമയം ആകുമ്പോഴത്തേക്കും അതിനു മുന്നേ എത്തിക്കണം ചൂടുണ്ടായിരിക്കണേ ആ ഓക്കെ അത് റെഡിയായി കഴിയുമ്പോ ഒന്ന് വിളിച്ചേക്കണേ ഈ നമ്പറിലോട്ടെ ആ അത് അത് അഡ്വാൻസ് വല്ലതും മുന്നേ തരണോ അഡ്വാൻസ് തുക തരണോ മുന്നേ അത് എന്നാല് ഒരു കാര്യം ചെയ്യാം ആ അത് മനസ്സിലായി എന്നാല് ഞങ്ങള് കുറച്ചു തന്നേക്കാവേ അപ്പോള് മറക്കല്ലേ മറന്നേക്കല്ലേ പത്താം പത്താം തീയതി ഞായറാഴ്ചയാണേ ഒന്ന് എഴുതി വെച്ചേക്കണേ അല്ലെങ്കില്പ്പിന്നെ അത് നമ്മള് വേറെ ഒരിടത്തും ഓര്ഡര് കൊടുക്കുന്നില്ലല്ലോ ആ ആ ഓക്കെ കേട്ടോ ഓക്കെ